ആ അതെ സാർ പറയൂ ആ ഓക്കെ സാർ സാറിന് എത്ര വണ്ടി വേണ്ടി വെരും എത്ര മെമ്പേഴ്സ് ആണ് സാർ ആ ഓക്കെ ആ ഓക്കെ ആ സാർ ഇപ്പം നമുക്ക് ട്രിപ്പിൾ നയൻ തൊട്ടാണ് വണ്ടികള് റെൻറ്റിന് കൊടുക്കുന്നത് അപ്പം ടു വീലേഴ്സ് ഓൾമോസ്റ്റ് നമുക്ക് ട്രിപ്പിൾ നയൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും പെർ ഡേ അതായത് ട്വൻറ്റി ഫോർ ഹവേഴ്സാ നമ്മള് ചാർജ് ചെയ്യുന്നെ ഒര് ഇരുപത്നാല് മണിക്കൂറ് നമ്മള് ട്രിപ്പിൾ നയൻ ആണ് വണ്ടി കൊടുക്കുന്നത് സാർ അത് ഞാൻ ഇപ്പം പറഞ്ഞുതരാം ആ ആ അപ്പം ലിമിറ്റിന്ന് പറയാൻ നമുക്ക് വലിയ കാര്യം ആയിട്ട് ഒന്നും ഇല്ലല്ലൊ നമ്മക്ക് ഇപ്പം ഓൾമോസ്റ്റ് ഇപ്പം ടു വീലേഴ്സ് ആയത് കൊണ്ട് നമുക്ക് ഒര് നാനൂറ് കിലോമീറ്റർ ഒക്കെ ആണ് മിനിമം അതായത് ട്വൻറ്റി ഫോർ ഹവേഴ്സ് അപ്പം ട്വൻറ്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഒര് ത്രീ ഒര് ത്രീ ഹണ്ട്രഡ് ഫോർ ഫോർ ഹണ്ട്രഡ് അത്രയും കിലോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മള് കൊടുക്കുക അതില് കൂടുതല് സാർ ഓടുവാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് വേണ്ടി വരും കാരണം നമുക്ക് ടു വീലേഴ്സ് അതീ കൂടുതൽ കഴിഞ്ഞാൽ നമുക്ക് മെയിൻ്റനൻസും കാര്യങ്ങൾ ഒക്കെ വരുന്നുണ്ട് എക്സ്ട്രാ പേയ്മെൻറ്റ് വേണ്ടി വരും അത് നമ്മള് വലിയ കാര്യം ആയിട്ടൊന്നും വരില്ല ഒര് ത്രീ ഹണ്ട്രഡ് ആ ഒര് ബഡ്ജറ്റിൽ ഒക്കെ വരൂള്ളു പെട്രോൾ ഇപ്പം നമ്മള് വണ്ടി ആ പെട്രോൾ ഇപ്പം നമ്മള് വണ്ടി എടുക്കുന്ന ടൈമില് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യും ആ പിന്നെ എക്സ്ട്രാ നിങ്ങള് അടയ്ക്കേണ്ട വരും പിന്നെ ടു രണ്ട് ആ ഹെൽമെറ്റ് രണ്ട് എണ്ണം നമ്മൾ അതിനകത്ത് പ്രൊവൈഡ് ചെയ്ത് ഉണ്ട് വലിയ ഐഎസ്ഐ സർട്ടിഫിക്കറ്റ് ഉള്ള സാധനം ആയിരിക്കും വലിയ ക്വാളിറ്റി ഒന്നും നമ്മള് പറയുന്നില്ല നിങ്ങൾക്ക് സേഫ് ആയിട്ട് പോവാൻ ഉള്ള ഒര് ഇത് നമ്മള് അറേഞ്ച് ചെയ്ത് തരും അത്ര ആണ് നമ്മൾ ഇപ്പം ചെയ്ത് കൊടുക്കുന്നത് പിന്നെ സാറിന് ആറ് അഞ്ച് വണ്ടി ആയിരിക്കില്ലെ വേണ്ടത് ഇപ്പം ഏത് ടൈപ്പ് ആണ് എങ്ങനെ ഓഫ്റോഡ് വലിക്കാൻ പറ്റിയ ടൈപ്പ് അങ്ങനത്ത വണ്ടികൾ ഒക്കെ ആണോ സാറിന് വേണ്ടത് നമ്മ ആ ഓക്കെ എന്നാൽ ഓക്കെ ഹിമാലയൻ പിന്നെ വരുന്നുണ്ട് ജിഎസ് ത്രീ ടെന്ന് വരുന്നുണ്ട് പിന്നെ എക്സ്പൾസ് വേണമെങ്കിൽ അത് ഉണ്ട് നമുക്ക് ഓൾമോസ്റ്റ് അഡ്വഞ്ചർ ടൈപ്പ് വണ്ടികളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് ഇപ്പം ഒര് ടു തൗസൻഡ് ഫൈവ് ഹണ്ട്രഡ് ഒക്കെ ആയിരിക്കും ഒര് ഹിമാലയൻ ഒക്ക വെരുമ്പോൾ ഏകദേശം വരിക

ഓക്കെ ആണോ ആ ഓക്കെ ആണല്ലേ ആ ഓക്കെ നമുക്ക് അപ്പം അത് നോക്കിയിട്ട് സാറ് വെരുമ്പത്തേക്കും നമുക്ക് എന്തായാലും നേരിട്ട് സംസാരിക്കാം പിന്നെ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ എന്തേലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ സാർ ഈ നമ്പറില് കോൺടാക്ട് ചെയ്താൽ മതി ആ ഡീറ്റെയിൽസ് ആയിട്ട് ഇപ്പം നമ്മക്ക് സാറിൻ്റ ഐഡി പ്രൂഫ് അതായത് ലൈസൻസ് മാത്രം മതി കാരണം നമ്മള് വണ്ടി കൊടുത്ത് വിടുമ്പം ലൈസൻസ് മസ്റ്റ് ആണ് അപ്പം ലൈസൻസ് മാത്രം ആണ് നമുക്ക് പ്രൂഫായിട്ട് വേണ്ടി വരുന്നത് അപ്പോൾ വേറെ എന്തേലും സംശയമോ കാര്യങ്ങളൊക്ക ഉണ്ടെങ്കിൽ സാറ് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് നമ്മളോട് ചോദിച്ചാൽ മതി നമ്മള് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാം ഓക്കെ താങ്ക്യൂ സാർ